എൻ്റെ വീടിൻ്റെ അടുത്ത് ഒരു പുസ്തക ശാലയുണ്ട് എവർശൻ ആർട്സ് ആൻ്റ് സ്പോർട്സ് ക്ലബ് നടത്തുന്ന ഒരു പുസ്തകശാലയാണത് എനിക്ക് കൂടുതലും ഇഷ്ടം ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലേഴ്സ് ആയിട്ടുള്ള പുസ്തകങ്ങൾ വായിക്കാനാണ് കുറ്റാന്വേഷണ കഥകളൊക്കെ വായിക്കാനാണ് എനിക്ക് കൂടുതലിഷ്ടം അതുകൊണ്ടുതന്നെ ഞാനങ്ങനെയുള്ള കഥകളാണ് കൂടുതലും ഉപയോഗിക്കാറ് വൈകുന്നേരങ്ങളിൽ അച്ഛൻ്റെ കൂടെ പോയിട്ട് അവടെ നിന്ന് ഈ പറയുന്ന കുറ്റാന്വേഷണ കഥകളുടെ ബുക്കുകൾ ഉണ്ടെങ്കിൽ അത് കുടുതലും എടുത്തു വായിക്കാറാണ് പതിവ്